ആ ചേച്ചി നമസ്കാരം ഞാൻ ഇവിടെ എണ്ണ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആട്ടീട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഇത് നമ്മള ഈ നല്ല വെളിച്ചെണ്ണ എങ്ങന ഇത് നമ്മള് നേര ആട്ടീട്ട് ഇത് ആക്കണത് ആണോ കടയിൽ പോയി കൊണ്ടുവരുന്നത് ആണോ ആ അത് ഇവിടെ ആട്ടുന്ന ആണോ അതെ അല്ലെ ഇത് ഇപ്പൊൾ നമുക്ക് എന്തിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും

ഈ മറ്റെ കമ്പനിക്കാര് പറയുന്നുണ്ടല്ലോ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കൊളസ്ട്രോള് വരൂന്ന് ഒക്കെ അത് ശരിയാ

ആ ആ ആ ഇപ്പം വീട്ടില് മറ്റെ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ ഒക്ക ഉപയോഗിക്കാൻ പറ്റുന്നത് ആണല്ലെ ഇത്

ആ ഇത് ഇപ്പം നമുക്ക് ഈ എണ്ണ കാച്ചുമ്പം എന്തൊക്കെ ഇതില് ഇപ്പം ഈ മുടിയിലേക്ക് തേക്കാൻ വേണ്ടി എണ്ണ കാച്ചില്ലെ അപ്പം അതിന് എന്തൊക്ക വേറെ എന്തെങ്കിലും ചേർക്കണം അതില്

അതെ അതെ ആ ഇവിടെ ഇപ്പൊൾ എത്രയാ റേറ്റ് എണ്ണെടെ ആ ഓക്കെ നമുക്ക് ഇപ്പം മറ്റെ ഈ ഇത് വണ്ടി ഓടിക്കാൻ അങ്ങനെ എന്തേലും പറ്റുമൊ അല്ല നമ്മൾ ഈ ചില ആൾക്കാര് കേട്ടിട്ടുണ്ട് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒക്കെ ഈ ഓട്ടോന് ഒക്ക ഈ ഓയിലിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന് അങ്ങന ഉപയോഗിക്കാൻ പറ്റോ ആ ഈ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുന്നത് നമ്മള് കാച്ചീട്ട് ആണോ തേക്കണ്ടെ അതോ ഡയറക്റ്റ് ആയിട്ട് ആണോ കൊടുക്കണ്ടെ ആ ഓക്കെ ചേച്ചി ഇപ്പം എനിക്ക് ഒര് അഞ്ച് ലിറ്റർ എണ്ണ വേണം അപ്പൊൾ അത് ഞാൻ അതിൻ്റ ക്യാഷ് എങ്ങനെയാ ഗൂഗിൾപേ ആണോ അതോ നേരിട്ട് തരുന്ന എങ്ങനെയാണ് വേണ്ടത് ആ അതിന് നേരത്തെ ഓർഡർ തന്ന് വെക്കണോ ആ അപ്പം വേറ അപ്പം എവിടെ പോയിരുന്നൂന്ന് പറഞ്ഞ് കയിഞ്ഞാ രാവില വിളിച്ച് പറഞ്ഞിട്ട് വരണം അല്ലെ ആ ഓക്കെ ഞാന് ഈ നേരിട്ട് വരാം ചേച്ചി ഒരു അഞ്ച് ലിറ്റർ എണ്ണ എടുത്ത് വയ്ക്കുവോ ഓക്കെ ചേച്ചി ഓക്കെ താങ്ക്യൂ